ഞാൻ ഇപ്പോൾ ഒരു സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓട്ടോ മോട്ടീവ് വെഹിക്കിൾ ലെവലിൽ ആയിരിക്കും തീർച്ചയായിട്ടും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്നത് ഒരു റൂറൽ ഏരിയ ആണ് നമുക്ക് ഇപ്പം അറിയാമല്ലോ പഴയ കാലത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ അതായത് സിറ്റി ബേസ്സ് ആണ് നമ്മൾക്ക് വണ്ടി വർഷോപ്പുകൾ അനുബന്ധ സർവീസുകളെല്ലാം ഉണ്ടായി കൊണ്ടിരുന്നത് പക്ഷേ അത് കാലം മാറി കാലം മാറിയിട്ട് ഇപ്പം ഈ ഇപ്പോൾ ഒട്ടുമിക്ക അത് എല്ലാ വീടുകളിലും ഒരു വീട്ടിൽ നാല് പേരുണ്ടങ്കിൽ നാല് പേർക്കും വണ്ടി ഒഴിച്ച് കൂടാനാവാത്ത ഒരു ഇതായിപ്പോയി കാരണം വണ്ടിയില്ലാതെ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ സെലക്റ്റ് ചെയ്യുന്നത് റൂറൽ റൂറൽ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു ഗ്രാമീണ സ്ഥലത്ത് ഒരു ഓട്ടോമോട്ടിക്ക് അതായത് വെഹിക്കിൾ സർവ്വീസ് സെൻ്റർ ആരംഭിക്കാനാണ് ഞാൻ തുടങ്ങിയേക്കുന്നത് കാരണം ഇപ്പോൾ ഗ്രാമീണ പ്രദേശത്തെല്ലാം വണ്ടികൾ ഉണ്ട് പക്ഷേ ഇവർ ഇപ്പം കൊണ്ട് പോകുന്നത് ഈ ടൗണിലേക്കാണ് ടൗണിൽ കൊണ്ട് പോകുമ്പോഴത്തേക്കും ടൗണിൽ കൊണ്ടു പോകുന്ന എക്സ്പെൻസ് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സമയം എപ്പോഴും കൂടുതലായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗ്രാമീണ പ്രദേശത്ത് തന്നെ നമുക്ക് ഗ്രാമത്തിൽ തന്നെ ഒരു ഓട്ടോമോട്ടീവ് വർക്ക് ഷോപ്പ് തുടങ്ങുക അത് പതുക്കെ തുടങ്ങി കഴിഞ്ഞ് അതിനോട് അനുബന്ധിച്ച് തന്നെ തീർച്ചയായിട്ടും ഒരു വാട്ടർ സർവ്വീസ് സെൻ്റർ വാട്ടർ സർവ്വീസ് കാരണം ഈ വാട്ടർ സർവ്വീസിൻ്റെ ആ ഉദ്ദേശം പറഞ്ഞത് എന്താണോ ആ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ പ്രദേശത്ത് ഈ വാട്ടർ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കൂടുതലായിരിക്കും ടൗണിലേക്കാട്ടിലും അതുമാത്രമല്ല ഇത് ഇലെക്ട്രിസിറ്റി ഇലെക്ട്രിസിറ്റി ചാർജ് റൂറൽ ഏരിയയിൽ തീരെ കുറവായിരിക്കും അത് കാരണം വാട്ടർ സർവ്വീസിങ്ങും തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സർവ്വീസിൽ കൂടെ നമുക്ക് ഈ അത്രയും ആ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിനെ തൂക്കി പിടിച്ച് കിട്ടുകയും ചെയ്യും അതിനോട് അനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബെൻഡിങ്ങും പെയിൻ്റിങ്ങും നമ്മുടെ ഈ ഇതിനോട് അനുബന്ധിച്ച് വരുന്ന വർക്ക് ഷോപ്പുകളിലാണല്ലോ നമ്മുടെ ഈ ഒരു വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആവുകയോ ഒന്ന് തട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ധാവീയം അതായത് പാച്ച് വർക്ക് ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ പെയ്ൻ്റിങ്ങ് ചെയ്യാൻ ആ ഒരു ഡെൻഡിങ്ങും പെയിൻ്റിങ്ങും കൂടെ ആകുമ്പോഴത്തേക്കും തന്നെ ഓൾമോസ്റ്റ് ആ ഏരിയ മുഴുവൻ നമ്മുടെ കൈ പിടിയിലാക്കാൻ പറ്റും പിന്നെ അതിൻ്റെ അനുബന്ധ ഘടകങ്ങളായ എ സി റിപ്പയറിങ്ങ് പിന്നെ ബാറ്റ്റി ചെക്കപ്പ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഇതെല്ലാം ഒരുമിച്ച് വർഷങ്ങൾ കൊണ്ട് വന്നാലും നാലും അഞ്ചും വർഷങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത്രയും ഞാൻ ഈ പറഞ്ഞ വർക്ക്ഷോപ്പും സർവ്വീസ് സെൻ്ററും ഡെൻ്റിങ്ങും പെയ്ൻ്റിങ്ങും ഇലക്ട്രിക്കൽ എ സി റിപ്പയറിങ്ങ് ഇത്രയും സംരഭം അഞ്ച് വർഷം കൊണ്ട് നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുകയും ചെയ്യും നമ്മൾ ആ ആ ഒരു ഏരിയയിൽ തീർച്ചയായിട്ടും നല്ലൊരു ജനങ്ങൾക്ക് സേവനം എല്ലാം ഈ അർപ്പിക്കുകയും ചെയ്യും അതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് നല്ല ഒരു വരുമാന മാർഗ്ഗവും ആവും തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ സെലെക്റ്റ് ചെയ്യുന്നു ഓട്ടോമോട്ടീവ് വർക്ക്ഷോപ്പ്